ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ആർട് ഏൻ്റ് ക്രാഫ്റ്റ് രീതിയിലുള്ള ഇങ്ങനെ എന്താപറയുക കലയിലും കരകൗശല വസ്തുക്കൾ അങ്ങനെ ഒന്നും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടില്ല എന്നാലും കൂടുതലായിട്ടും അങ്ങനെ വരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ കലാരൂപങ്ങളൊക്കെയാണ് അവർ പോകുമ്പോൾ പാടുന്ന പാട്ടുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അവർ ഒരു ഈണത്തിലും മ ഇതിലൊക്കെ പാട്ടൊക്കെ പാടിയാണ് വല എന്താ പറയുക വലിച്ച് വള്ളത്തിൽ കയറ്റുന്നത് അത് കോഴിക്കോട് ജില്ലയിലൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് കാണുമ്പോൾ നമുക്ക് എന്താപറയുക കാണുമ്പോൾ തന്നെയൊരു വലിയൊരു കാര്യം തന്നെയാണ് അത് എന്താപറയുക പാരമ്പര്യമായിട്ട് തന്നെ കണ്ടു വരുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അവരുടെ പാട്ട് പാടുന്ന ഈണം അങ്ങനെയുള്ള എന്താ പറയുക മുക്കുവന്മാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും എന്താ പറയുക ഒരു വലിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ ഇങ്ങനെ മീൻ തന്നെയാണ് അവർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിന്നെ ഹാർബറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വ്യത്യസ്ഥമായ സംസാര രീതികൾ ഓരോ രാജ്യത്തിൽ നിന്ന് അതായത് ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വന്നിട്ട് അവരുടേതായ രീതികളൊക്കെയിവിടെ ഇപ്പോൾ ഉയർന്നു വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കോഴിക്കോട് ജില്ലക്കൊക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്